ഇപ്പോൾ മലയാളത്തിൽ തന്നെ പലര് പലതരത്തിലുള്ള സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് വേറൊരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുക്ക് ഇപ്പോൾ കണ്ണൂര് ഭാഷയാണെങ്കിലും ഇപ്പോൾ കോഴിക്കോടുമായിട്ട് വളരെയധികം ഡിഫറൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഷയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്ന് പറയാം കാരണം എന്താന്നുവെച്ച് കഴിഞ്ഞാല് പല രീതിയിലുള്ള ഭാഷാഭേദങ്ങൾലൂടെയാണ് മലയാളം കടന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളില് ഇപ്പം കാസർക്കോടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറെരു രീതിയിലുള്ള ഭാഷയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പ അതിനനുസരിച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ ഉണ്ടാവും ഇപ്പം കാസർകോടുള്ള ആള് തിരുവനന്തപുരത്ത് പോയിക്കഴിഞ്ഞാല് അവിടെയുള്ള ഭാഷാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് വേറെ ആയിരിക്കും അപ്പം ഈ കാസർകോട്ടുള്ള ആൾക്കാര് അവരോട് പറയുമ്പം ചിലപ്പോൾ അവർക്കത് മനസ്സിലായിന്ന് വരില്ല കാരണം ഡിഫറൻറ്റാണ് ഭാഷയും കാര്യങ്ങളൊക്കെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റായിട്ടായിരിക്കും അവര് പറയുന്നത് പ്രനൗൺസേഷനൊക്കെ വേറെ രീതിലൊക്കെയാണ് മാറി വരുന്നത്